വ്യാകരണ ഉച്ഛാരണവും പോലെയുള്ള മലയാള ഭാഷയുടെ ചില സവിശേഷതകളെക്കുറിച്ച് പറയാനായിട്ട് എനിക്കങ്ങനെ അറിയില്ല വ്യാകരണം ഉച്ഛാരണമാണ് പ്രധാനമായിട്ടും അത് ഇപ്പം ചില പല ഭാഷകളിൽത്തന്നെ സോറി പല ഭാഷകളിലല്ല ഞാനുദ്ദേശിച്ചത് ഇപ്പം മലയാളംതന്നെ പല ജില്ലകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ഒരു ശൈലിയായിരിക്കും അവിടെ ഒരു വാക്കിനും പല രീതിയിലും പല ശൈലിയിലായിരിക്കും വരുന്നത് അപ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുക ഉച്ഛാരണം എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും അതൊക്കെ മലയാള ഭാഷയുടെ ഒരു സവിശേഷത തന്നെയാണ്